ഒരിക്കൽ മീശപ്പുലിമല മൂന്നാറിലെ മീശപ്പുലിമല അതായത് കേരളത്തിലെ മൂന്നാർ എന്ന സ്ഥലത്ത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ എന്ന സ്ഥലത്ത് മീശപ്പുലിമല എന്ന ട്രെക്കിംഗ് പോയിന്റിലേക്ക് ട്രെക്കിങ്ങിന് പോയ സമയത്താണ് എനിക്ക് മോശം കാലാവസ്ഥ അനുഭവപ്പെട്ടിട്ടുള്ളത് അത് ഞാൻ എങ്ങനെയാണ് നേരിട്ടതെന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വളരെ മൂടൽ കാർമേഘം മൂടിക്കു കാർമേഘവും മഞ്ഞും മൂടൽ മഞ്ഞും മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ കൂടെ ആന ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെക്കിംഗ് വളരെ ദുഷ്കരമായിരുന്നു അതിനെ എങ്ങനെ നേരിട്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ ചൂട്ട് കത്തിച്ച് പിടിച്ച് മുന്നോട്ട് നടന്നിട്ടാണ് നമ്മൾ ഈ മൂടൽ മഞ്ഞിനെ മഞ്ഞ് മഞ്ഞ ടോർച്ചും ചൂട്ടും കത്തിച്ച് പിടിച്ചാണ് ഈ മൂടൽ മഞ്ഞിനെ നമ്മൾ നീക്കിയിരുന്നത് ഇനി എന്തൊക്കെ മരുന്നുകളാണ് ട്രക്കിങ്ങിന് കരുതേണ്ടതെന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായി പാരസിറ്റമോൾ പനി പിടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി പാരസിറ്റമോൾ വേണം പിന്നെ സ്ട്രെപ്സിൽസ് വേണം അത് നമുക്ക് തൊണ്ട വേദന ജലദോഷം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ ആന്റിസെപ്റ്റിക് ക്രീം വേണം ബാൻഡേജ് വേണം ബ്ലിസ്റ്റർ ടെപ്പ്സ് വേണം പിന്നെ ഹൈറ്റു പേടി ഹൈറ്റിന്റെ പ്രശ്നം വരുകയാണെങ്കിൽ ആൾടിറ്റ്യൂഡ് സിക്നെസ്സ് ടാബ്ലറ്റ്സ് വേണം പിന്നെ ആസ്പിരിൻ വേണം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് മരുന്നായി കരുതേണ്ടത്